ആ ആയിക്കോട്ടെ പറഞ്ഞോളൂ സാർ എങ്ങനെയാണ് വെജ് ആണോ നോൺ വെജ് ആണോ നോക്കുന്നത് രണ്ടും കുഴപ്പം ഇല്ലല്ലേ നമുക്ക് വെജ് ഐറ്റംസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് മീൽസ് റെഡി ആക്കി തരാം മീൽസ് പിന്നെ പൊറോട്ടയും എന്തെങ്കിലും വെജിറ്റബിൾ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം ഇല്ല നിങ്ങൾ ഏത് ടൈമിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ടൈമിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും രാവിലെ നമുക്ക് വല്ല ആ എന്തെങ്കിലും അപ്പവും അതായത് വെജിറ്റബിൾ കറി പിന്നെ വേണമെങ്കിൽ നമുക്ക് പുട്ടാക്കാം പുട്ടും കടലയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്ത് തരാം നമ്മൾ കറക്റ്റ് മാനന്തവാടിയാണ് ആ അതെ മീൽസിൽ നമുക്ക് സാമ്പാറുണ്ടാവും പിന്നെ അവിയൽ അച്ചാറ് ചമ്മന്തി തോരൻ ഇതൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് പായസം വരുന്നുണ്ട് അതിൽ പായസം നമുക്ക് വേണമെങ്കിൽ നാല് ടൈപ്പ് ഉണ്ട് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ആ നമുക്ക് സേമിയ വരുന്നുണ്ട് അടപ്രഥ അടപ്രഥ അടപ്രഥമൻ എന്ന് പറയുന്ന ഒരു പായസം വരുന്നുണ്ട് പിന്നെ പാലട അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് ഫിഷ് നമുക്ക് അയല മത്തി പിന്നെ വേണമെങ്കിൽ കിളിമീൻ അങ്ങനത്തെ ഒക്കെ വെറൈറ്റി പിന്നെ കരിമീൻ വേണമെങ്കിൽ കരിമീൻ എത്തിക്കാം പിന്നെ സ്ക്വിഡ് ഉണ്ട് ആ നമുക്ക് ഏതാണോ വേണ്ടത് അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനം നമുക്ക് പുറത്തുനിന്ന് വരുത്താം പിന്നെ മീൽസ് അല്ലാണ്ട് എന്തെങ്കിലും റേറ്റ് നമുക്ക് മീൽസിനാണെങ്കിൽ സെവന്റി റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ല ഫിഷ് അടക്കം

നാളെയാണല്ലേ എത്ര പേർക്കുള്ളതാണ് സാർ പതിനഞ്ച് പേർക്ക് നമുക്ക് നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും വേണോ കപ്പയും ബീഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണോ അത് മതിയല്ലേ ആയിക്കോട്ടെ സാർ ആയിക്കോട്ടെ എന്നാൽ വിളിച്ചിട്ട് വരണം കേട്ടൊ ഓക്കെ